നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ട്രഡീഷ്ണൽ ഡാൻസ് ഫോമുകളായിട്ടുള്ള നൃത്തകലകൾ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഭരതനാട്യം കഥകളി കുച്ചിപ്പുടി മോഹിനിയാട്ടം അങ്ങനെയുള്ള നിരവധി ഡാൻസ് ഫോമുകളുണ്ട് ധാരാളം നിരവധി അനവദി സിനിമകൾ ഇപ്പത്തന്നെ റിലീസ് ആവുന്നുണ്ട് ഇന്ത്യയിലെ ആൾക്കാർക്ക് ഏറ്റവും അധികം കൂടുതൽ ഇഷ്ടം ഡാൻസ്സ് മ്യൂസിക്ക് ഡ്രാമ ഫിലിംസ്സ് കോൺസ്ട്രക്റ്റ് ഗേയ്മിങ്ങ് ഒക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പം ഇന്ത്യയിലിപ്പം പടര്ന്ന് വളരെ വളരെയധികം പടര്ന്ന് പന്തലിച്ച് വന്നിരിക്കുന്ന ഫീൽഡ്കളാണ് ഇതെല്ലാം മ്യൂസിയ്ക്ക്ല് ഫീൽഡ്ഡ് വളരെയധികം മെച്ചപ്പെട്ട രീതിയിലാണിപ്പം നമ്മളെ ഇവിടെ ഇന്ത്യേൽ പോകുന്നത് ഗേയ്മിങ് ഫീൽഡും അതുപോലെത്തന്നെ വളരെ രീതി വളരെ ഉയർച്ച രീതിയിൽത്തന്നെയാണ് പൊക്കോണ്ടിരിക്കുന്നത്